ഹലോ അസീസ് ഹോട്ടൽ അല്ലേ ആ ഞാൻ സ്വിഗ്ഗിന്നു ഒരു ചിക്കൻ ഫ്രൈഡ് റൈസ് ഓർഡറെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് എനിക്ക് ആവിശ്യയില്ലാതെ ഓണ്ട് ഞാൻ അത് ക്യാൻസലെയ്തു ആ ക്യാഷ് എമൗണ്ട് ഇതുവരെയും റീഫണ്ട് ആയിട്ടില്ല ഏകദേശം അരമണിക്കൂറിലുമേലെയായി ആ അതെങ്ങനെയാണ് സ്വിഗ്ഗീനെ ബന്ധപ്പെടാന് പറയുക നിങ്ങളുടെ ഹോട്ടലിലേക്കല്ലേ ഡയറക്റ്റ് ക്യാഷ് പോയേക്കുന്നത് ഓക്കെ അ അത് പറഞ്ഞത് മനസ്സിലാവുന്നുണ്ട് പക്ഷെ നിങ്ങള് നേരത്തെ പ്ലേസ് ഓർഡറെന്ന് പറഞ്ഞു കാണിച്ചായിരുന്നു അപ്പോള് ഞാൻ അവിടെ സ്വിഗ്ഗിയില് ബന്ധപ്പെടുത്തി ബന്ധപ്പെട്ടപ്പോള് അവര് പറയുന്നേന്നുവെച്ചുകഴിഞ്ഞാല് ഹോട്ടലുടമയോട് ചോദിക്കാനാണ് അപ്പോള് നിങ്ങളിങ്ങനെ പറയുന്നു അവര് പറയുന്നു നിങ്ങളോടു ചോദിക്കാൻ എന്തായാലും എനിക്ക് എൻ്റെ ക്യാഷ് എങ്ങനെ ഏത് വഴിയില് കിട്ടുമെന്ന് എനിക്കറിഞ്ഞേ പറ്റുകയുള്ളൂ കാരണം ഇരുന്നൂറ്റിയിരുപത്തിയഞ്ചു രൂപ വെറുതെ കിട്ടുന്നതല്ലല്ലോ ആ ക്യാഷ് തിരിച്ച് ആ ക്യാഷ് തിരിച്ച്കിട്ടില്ലെങ്കില് എനിക്ക് ഓഡര് പ്ലെസെയ്ത് സാധനം ഇവിടെ എത്തിക്കണം ആ ഒരുമിനിറ്റിലല്ല ക്യാൻസലീതെ ഒരു മിനിറ്റിലല്ല ക്യാൻസെലീതത് പിന്നെ ഞാൻ ക്യാൻസൽ ഓപ്ഷൻസൊക്കെ നോക്കിയിട്ട് കണ്ടില്ല അതുകൊണ്ട് ഞാൻ ഹോട്ടലില് ഡയറക്റ്റ് വിളിച്ച് പറയുകയാണ് ചെയ്തിരുന്നത് എനിക്ക് അത് ക്യാൻസലേതുകിട്ടണമെന്ന് ഓക്കെ ഒരു മിനിറ്റിനുള്ളില് ക്യാൻസലേയണം ഓക്കെ അപ്പോള് കുഴപ്പമില്ല എനിക്ക് സാധനം കിട്ടിയാലും മതി ഇതുവരെയും സാധനവും കിട്ടിയിട്ടില്ല നിങ്ങള് അരമണിക്കൂറിനകത്ത് ഡെലിവറി ചെയ്യുമെന്നാണ് കാണിച്ചിരുന്നെ പക്ഷെ സാധനവും കിട്ടിയിട്ടില്ല ക്യാഷും ഇല്ല അതെങ്ങനെ ശരിയാവുക അതെ ഞാന് ഹോട്ടലില് ഡൈറെക്റ്റ് വിളിച്ചിട്ടാണ് ക്യാൻസെലെയ്തിട്ടുണ്ടായിരുന്നത് ഇല്ല നിങ്ങളിങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഒന്നീ ക്യാഷ് തരുക അല്ലാന്നുണ്ടെങ്കില് സാധനം തരുക ഏതെങ്കിലും ഒന്ന് ചെയ്തല്ലേപറ്റുള്ളു റീഫണ്ടിഷ്യൂ ഇതുവരെയും സ്വിഗ്ഗിന്നിങ്ങനെ വന്നിട്ടില്ല കാരണം ഞാൻ അങ്ങനെ ക്യാൻസലേയ്തിറ്റില്ല ഓഡേഴ്സൊന്നും അതുകൊണ്ടെനിക്ക് ഒരു മിനിറ്റില് ക്യാൻസെലെയ്യാന്നറിയില്ലായിരുന്നു ഞാന് ഡയററ്റ് നിങ്ങളുടെ ഹോട്ടലില് വിളിച്ചിട്ട് അത് ക്യാൻസെലെയ്യാ അപ്പോള് ഒരാള് ഫോണെടുത്തപ്പഴ്ത്തേക്കും വേറൊരാളാണ് എടുത്തേ ഫോണെടുത്തിട്ട് പറഞ്ഞായിരുന്നു അത് ക്യാൻസെലെയ്തു മാഡം റീഫണ്ട് ആവുമെന്ന് പറഞ്ഞായിരുന്നു ഇതിപ്പോള് ഒന്നര മണിക്കൂറിനുമേലായി ഇതുവരെയും സാധനവും കിട്ടിയിട്ടില്ല റീഫണ്ടായിട്ടുമില്ല അതെങ്ങനെ ശരിയാവുന്നേ ഇവിടെ വീട്ടില് ഗസ്റ്റുണ്ടായിരുന്നു സൊ അങ്ങനെയാണ് ഓഡിറീതത് അപ്പോള് ഓഡര് ലേറ്റാവും എന്ന് അറിയാന്നുള്ളോണ്ടത് ക്യാൻസെലീതതാണ് ഇല്ലെങ്കിൽ നിങ്ങള് വിളിക്കുമ്പഴ്ത്തേക്കും പറയണമായിരുന്നു ഓഡെറീയ്യാൻ പറ്റില്ലായിരുന്നു എന്ന് ഓക്കെ എനിക്ക് സ്വിഗ്ഗിയില് വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ കാരണം ഞാൻ നിങ്ങളെ ആണ് വിളിച്ച് ബന്ധപ്പെട്ട് ക്യാൻസെലെയ്തത് അപ്പോള് നിങ്ങള് തന്നെ അതിനൊരു തീരുമാനം ഉണ്ടാക്കണ്ടേ ഓക്കേ ഓക്കെ ഞാന് എനിക്ക് എന്തായാലും സാധനം കിട്ടില്ലാന്നുണ്ടെങ്കില് ക്യാഷ് റീഫണ്ടെയ്ത് കിട്ടിയ ഞാന് ഒരു അരമണിക്കൂര്കൂടെ വെയ്റ്റ് ചെയ്യും അതുകഴിഞ്ഞിട്ട് ഞാൻ കോള് ചെയ്യാം ഓക്കെ ഓക്കെ താങ്ക് യു